എനിക്ക് ആരോഗ്യ ഇൻഷൂറൻസ് ഉണ്ടായിരുന്നു രണ്ട് വർഷം മുൻപ് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരവസരം വന്നു അതായത് എനിക്ക് പനിയും ശ്വാസം മുട്ടലും ബ്ലെഡിൽ കുറച്ച് ചെറിയ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ അഡ്മിറ്റായ സമയത്ത് എനിക്ക് ആറ് മണിക്കൂർ ഇടവിട്ട് ആൻറ്റിബയോടിക് ഉപയോഗിക്കേണ്ടി വന്നു വലിയ കൂടിയ മെഡിസിൻസ് തന്നെയാണ് ഉപയോഗിച്ചത് ആരോഗ്യ ഇൻഷൂറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളവിടത്തെ പീ ആർ എ കണ്ട് സംസാരിക്കുകയും ആരോഗ്യ ഇൻഷൂറൻസിൻ്റെ പിന്നെ ഇതിലൂടെ ആ ഞങ്ങൾക്ക് അടക്കേണ്ട അടക്കേണ്ടിയ പൈസ റീഫണ്ട് ചെയ്യുകയും ചെയ്തു കിട്ടി കിട്ടുകയും ചെയ്തു അത് പി പിന്നെ അതുപോലെ നമുക്ക് ആരോഗ്യ ഇൻഷൂറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അതൊരു വലിയ ഒരു ബെനെഫിറ്റായിരുന്നു നമ്മുടെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽപോയി അഡ്മിറ്റായി ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ എക്സറേം സ്കാനിങ്ങും അതുപോലുള്ളതെല്ലാം പുറത്ത് പോയി പിന്നെ ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടി വന്നു